ഞങ്ങൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് വച്ചാൽ ചുറ്റുമുള്ള വേസ്റ്റും അതൊക്കെ ഒരു വേസ്റ്റ് വേസ്റ്റ് ബാസ്കറ്റിൽ തന്നെ നിക്ഷേപിക്കുക അതുപോലെ ഇവിടെ വീട്ടിന്റെ അടുത്തൊരു പന്നിക്ക് കൊടുക്കാനുള്ള ഒരു ബക്കറ്റ് വേസ്റ്റ് ബക്കറ്റ് വച്ചിട്ടുണ്ട് അതിലിപ്പോൾ പന്നിക്ക് കൊടുക്കുന്ന ആഹാരം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരത്തിന് ആഹാരത്തിൽനിന്ന് വേസ്റ്റ് ആയതും അതുപോലെ ആഹാരസാധങ്ങളും അതുപോലെ പന്നി എന്താണോ കഴിക്കുന്നത് അതുപോലുള്ള ഭക്ഷണസാധനങ്ങളും ഒക്കെ ആ കൂണ്ടിൽത്തന്നെ ആ ബാസ്കറ്റിൽ തന്നെ നിക്ഷേപിക്കും വീടിന്റെ അടുത്തൊന്നും ഇടാറില്ല അതുപോലെ തന്നെ വീടും പരിസരവും നല്ല വൃത്തിയായി സൂക്ഷിക്കുക നല്ല വൃത്തിയിൽ അടിച്ചു വാരി ദിവസവും അടിച്ചു വാരി പ്ലാസ്റ്റിക്ക് അങ്ങനത്തെ ഒന്നും വെക്കാതെ പ്ലാസ്റ്റിക്ക് ഒരാൾ എടുക്കാൻ വരും ഒരു കുറച്ച് അതൊരു സർക്കാരിന്റെ നിയമം വന്നതാണല്ലോ ഇപ്പോൾ പ്ലാസ്റ്റിക്കിന് ഒരു അൻപത് രൂപ കൊടുത്തിട്ട് പ്ലാസ്റ്റിക്ക് ശേഖരിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ പ്ലാസ്റ്റിക്ക് എടുക്കാൻ വരും അവർക്ക് നൽകും അതുപോലെ ചുറ്റുപാടൊക്കെ ഇലകളും അതൊക്കെ കൊഴിഞ്ഞാൽ അത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പിന്നെ ചെടീന്റെയോ അല്ലെങ്കിൽ വാഴയാണെങ്കിലോ തെങ്ങാണെങ്കിൽ തെങ്ങിന്റെ ചുവട്ടിലൊക്കെ പിന്നെ അടിച്ചുകൂട്ടി തെങ്ങിനൊരു വളമായിട്ട് ജൈവവളം ആണല്ലോ അതൊക്കെ അങ്ങനെ വീടും പരിസരവും നല്ല വൃത്തിയായി തന്നെയാണ് സൂക്ഷിക്കുന്നത് ഇങ്ങനെ ഇത് ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്